തീർച്ചയായും നമുക്കൊരു സാധനം പിന്നെ നമ്മൾ ഉണ്ടാക്കിയെന്ന് വിചാരിച്ചോ അപ്പം നമുക്കത് വിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വിൽപ്പനക്കാരിലേക്ക് എത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ വാങ്ങുമ്പോഴുള്ള റേറ്റൊന്നും നമ്മൾ വിക്കുമ്പോൾ ഉണ്ടാവില്ല എന്ത് വസ്തു ആയിക്കോട്ടെ ഇപ്പോൾ നമ്മളൊരു പശുവിനെ വാങ്ങിയാലും ഒരു പിന്നെ ആടിനെയോ മുയലിനെയോ പട്ടിയെയോ മീനെയോ എന്തിനെ വാങ്ങിച്ചോട്ടെ വേണ്ട ഒരു വണ്ടി വാങ്ങിയാലും നമ്മൾ വിൽക്കണ റേറ്റൊന്നും ഉണ്ടാവില്ല അതേപോലെ തന്നെയാണ് നമ്മുടെ പച്ചക്കറി നമ്മൾ കഷ്ടപ്പെട്ട് ശുദ്ധമായ ജൈവവളത്തിലുണ്ടാക്കുന്ന പച്ചക്കറി നമുക്ക് വിൽക്കാനുള്ളൊരു മാധ്യമം അതൊരു അതെങ്ങനെ വിൽക്കണമെന്നുള്ളൊരു വഴി നമുക്ക് നമ്മുടെ മുൻപിലില്ല അപ്പം നമ്മൾ അപ്പം നമ്മൾ എന്താ ചെയ്യുക ഇപ്പോൾ നമുക്ക് സ്ത്രീകൾക്കാണെങ്കിൽ കുടുംബ ശ്രീ മുഖേന നമുക്ക് സാധനങ്ങൾ വിൽക്കാൻ പറ്റും അല്ലാത്തവർക്കാണെ ബുദ്ധിമുട്ടാണ് ഇപ്പം നമുക്ക് സർക്കാർ പിന്നെ കുടുംബ ശ്രീ മുഖേന നമുക്ക് സ പിന്നെ വനിതകൾക്ക് സാധനങ്ങൾ വിൽക്കാനുള്ള അനുമതി ഉണ്ട് നമുക്ക് ഒരു സ്റ്റോൾ പോലെ ഇട്ട് വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് നമ്മുടെ പിന്നെ ഒരു കാർഷിക വിപണന കേന്ദ്രം പോലെയാക്കാനുള്ള അനുമതിയുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം അഭിമുഖീകരിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പം അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ മുൻപോട്ട് വരുന്നവർക്കൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് സർക്കാർ നമ്മുടെ ഉത്പ്പന്നങ്ങൾ മറ്റു ആൾക്കാരിലേക്കെത്തിക്കാൻ നമുക്കതുവഴി സാധിക്കുന്നുമുണ്ട്